ഇന്ന് നമ്മുടെയെല്ലാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട് ഇപ്പോൾ മിക്സി ഗ്രൈൻഡർ ഗ്യാസ് സിലിണ്ടർ അതുപോലെ അവൻ പിന്നേ ഹീറ്റർ പിന്നേ അതുപോലെ കെറ്റിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട് അതുപോലെ അതുപോലെത്തന്നെ ഇസ്തിരിപ്പെട്ടി അതൊക്കെ ഇന്ന് എല്ലാ വീടുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യകാലഘട്ടത്തിൽ ഒക്കെ നമുക്ക് കരണ്ട് വരെ കിട്ടാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്നാൽ ഇന്ന് ഒരു ഒരുപാട് മാറി നമ്മളിപ്പോൾ അരി അരയ്ക്കാൻ ആണെങ്കിലും തേങ്ങ അരയ്ക്കാൻ ആണെങ്കിലൊക്കെ നമ്മൾ അമ്മി അമ്മിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലിൽ നിന്നും അമ്മി അമ്മിയും കൊണ്ട് അരച്ചരച്ച് ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ അരി ഒക്കെ അരച്ച് ഓരോ ഭക്ഷണങ്ങളൊക്കേ ഭക്ഷണങ്ങളൊക്കേ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ന് മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നേ ഒരു പത്തു മിനിറ്റിൽ നമ്മൾ കരണ്ട് കരണ്ട് വഴി നമുക്ക് പെട്ടെന്ന് തന്നേ അരച്ചെടുക്കാനും ഫുഡുണ്ടാക്കാനും ഒക്കേ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരം വീട്ടുപകരണങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമല്ല എങ്കിൽ നമ്മൾ പെട്ടുപോയേനെ ഇന്നത്തേ ഈ തലമുറ ഇതിനൊന്നും ഈ അമ്മിയിൽ അരയ്ക്കാനോ അതുപോലെ കല്ലിൽ കല്ലിൽ തന്നേ കൊണ്ടുപോയി ഇപ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കാൻ ഒന്നും നിൽക്കില്ല ഇന്ന് വാഷിംഗ് മെഷീനും അതുപോലെ ഫ്രിഡ്ജ് ഒക്കേ ഉള്ളതുകൊണ്ട് തന്നേ നമ്മൾ ഒരുപാട് ഭക്ഷണസാധനങ്ങളൊക്കെ ഇന്ന് ഇന്ന് ഉപയോഗിച്ച് ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ കയറ്റിവെച്ച് നാളെ അത് ചൂടാക്കി ഇങ്ങനെ ആഴ്ചകളോളം വെച്ചാണ് ചൂടാക്കിക്കൊണ്ട് എന്നാൽ അന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം ഇന്ന് തന്നേ കഴിച്ച് പിന്നീട് രണ്ടാമത്തേ ദിവസം വേറെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇ ഇന്ന് ഒരുപാട് മാറ്റങ്ങളാണ് ഇന്നത്തേ ഒരു രീതിയെന്ന് പറയുന്നത് നമുക്ക് എല്ലാം എളുപ്പത്തിൽ തന്നേ എല്ലാം ചെയ്യാവുന്നതാണ് പിന്നേ അതുപോലെതന്നേ ഈയൊരു ഇപ്പോ നമ്മള് ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ ഇല്ലാതായാൽ നമ്മൾ ഒന്ന് ഒരു നമുക്ക് വെറുതേ ഇരിക്കേണ്ടതായിട്ട് വരും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലാ അത് അത്രയും നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ആദ്യമൊക്കെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയായിരുന്നു ഇന്ന് മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്വിച്ച് ഇടുമ്പോൾ ടാങ്കിൽ വെള്ളം നിറയുകയും പൈപ്പിലൂടെ വെള്ളം നമുക്ക് ഒരുപാട് നമുക്ക് വെള്ളം ഉപയോഗിക്കുന്നതിനുതന്നേ ഒരു കൈയും കണക്കും ഉണ്ടാവില്ല അതുപോലെയാണ് പിന്നേ അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ആദ്യം നമ്മൾ നമ്മുടെ ഈ ചെളിമണ്ണ് കളിമണ്ണ് കൊണ്ടൊക്കെ അടുപ്പുണ്ടാക്കി അത് കത്തിച്ച് അതിൽ അതിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഗ്യാസ് അടുപ്പുള്ളതുക്കൊണ്ടു തന്നേ നമുക്കതും ഒരു എളുപ്പമാണ് അതുപോലെ അവൻ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം തന്നേ ചൂടാക്കാനും എല്ലാം തന്നേ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇടയിൽ തന്നേ വന്നിട്ടുണ്ട് അന്നത്തേ കാലവും ഇന്നത്തേ കാലവും ഒന്നു നോക്കിയിരിക്കുമ്പോൾ അന്ന് നമുക്ക് വളരെ ഇന്നത്തേ ആൾക്കാർക്ക് അന്ന് വളരെ ബുദ്ധിമുട്ടായ കാലമാണ് എന്നാൽ അന്നത്തെ അൾക്കാർ അന്ന് ഒരു ബുദ്ധിമുട്ടും അല്ലാ അവരുടെ കാലമായിരുന്നു നല്ലത് എന്നാണ് അവർ അവർ പറയുന്നത്